എനിക്ക് പാട്ട് പാടാൻ ഭയങ്കര ഇഷ്ടമാണ് പാട്ട് പണ്ടു മുതലേ പാട്ട് കേൾക്കാനും എല്ലാം ചെറുപ്പം മുതലേ ഇങ്ങനെ ടി വിലെല്ലാം വരുന്ന പാട്ട് കേട്ട് കേട്ടിട്ടാണ് ഞാൻ പാട്ട് പഠിച്ചത് ഡെയിലി എല്ലാ ദിവസവും ഞാൻ ടി വിൽ വരുന്ന പാട്ട് കേൾക്കും അങ്ങനെ പാട്ട് പാടാനും എനിക്ക് ഒരു ഇഷ്ട്ടമുണ്ടായി അങ്ങനെ പാട്ട് പാടാൻ തുടങ്ങി ഡെയിലി എൻ്റെ ജീവിതത്തിൽ മൊത്തമായിട്ട് ഞാൻ എല്ലാ ദിവസവും പാട്ട് കേൾക്കാൻ തുടങ്ങി പിന്നെ പിന്നെ ഫോണായല്ലോ ഫോണിൽ ഒരു ദിവസം വരെ ഞാൻ പാട്ട് കേൾക്കാതെ ഞാൻ ഉറങ്ങൂല്ല എല്ലാ ദിവസവും പാട്ട് കേട്ട് പാട്ട് കേട്ട് അങ്ങനെ പാട്ട് അതിൻ്റെ ലിറിക്സ് എല്ലാം പാട്ട് കേട്ട് കേട്ട് തന്നെ പഠിച്ച് അങ്ങനെ അത് പാടാൻ തുടങ്ങി അങ്ങനെയാണ് എൻ്റെ പാട്ട് പാടാനുള്ള കഴിവ് ഞാൻ വികസിപ്പിച്ചെടുത്തത് ഡെയിലി കേൾക്കും എല്ലാ ദിവസവും ഒരു ദിവസം ഈ പാട്ട് കേട്ട് പാട്ട് കേട്ട് പാട്ട് കേട്ട് അതിൻ്റെ വരികളെല്ലാം കേട്ട് കേട്ട് പഠിച്ചിട്ടാണ് ഞാൻ പാട്ട് പാടൽ ഭയങ്കര ഇഷ്ട്ടമുള്ള ഒരു ഇതാണ് പാട്ട് പാടാന്ന് വച്ചാൽ പഠിപ്പിക്കാനുള്ള ഇതൊന്നും ഇവിടെ ഇല്ല അതുകൊണ്ട് കേട്ട് കേട്ട് കേട്ട് പഠിച്ച് അങ്ങനെ വരിയെല്ലാം പഠിച്ച് പാടി അത്ര ഈണത്തിൽ പാടാൻ പറ്റുന്നുണ്ടോന്ന് ഒന്നും എനിക്കറിയില്ല പക്ഷേ എങ്കിൽ എനിക്ക് അത് ഇഷ്ടമുള്ളൊരു കാര്യമെന്ന് അത് എൻ്റെ ഒരു കഴിവാണെന്ന് എനിക്ക് ഒരു പൂതിയുള്ള കൊണ്ട് അതിനെ ഞാൻ പാട്ട് കേട്ടിട്ടുണ്ട് എന്നെകൊണ്ട് പറ്റുന്ന രീതിയിൽ ഞാൻ അതിനെ വികസിപ്പിച്ചെടുത്തത് അങ്ങനെയാണ് ആ നല്ല രീതി തന്നെ എനിക്ക് ചെയ്യാൻ പറ്റുന്നുണ്ടെന്ന് ഞാൻ വിചാരിക്കുന്നു